മുട്ടു വേദന മാറാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ എരിക്കിൻ്റെ ഇലയിൽ എണ്ണ തേച്ച് അത് മുട്ടിൽ വയ്ക്കുന്ന ഒരു പതിവുണ്ട് മാത്രമല്ല അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇല ചൂടാക്കി മുട്ടിൽ വയ്ക്കും പിന്നെ തൈലം ഉപയോഗിച്ച് കാലിൽ ധാരാളം തൈലം ഉപയോഗിച്ച് എണ്ണ എണ്ണ തേച്ച് അതിൽ നല്ലവണ്ണം വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ധാരധാരയായി മുട്ടിൽ ഒഴുക്കുകയാണെങ്കിൽ മുട്ടുവേദന ശമിപ്പിക്കും എന്നു പറയാറുണ്ട് മാത്രമല്ല ആയുർവേദ കടയിൽ നിന്ന് ലഭിക്കുന്ന നാരായണ തൈലവും കൽപ്പൂരാതി തൈലവും മിക്സ് ചെയ്ത് ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് തേച്ചു പിടിപ്പിച്ച് കുറേ സമയം ഇരിക്കുകയും അതിനുശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും സോപ്പ് ഉപയോഗിക്കാതെ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാണ് മെഴുക്ക് ഇളക്കിക്കളയുക അത് അപ്പോൾ ധാരാളം ചൂടുവെള്ളം ഉപയോഗിച്ച് കാലിൽ ഒഴിക്കുകയാണെങ്കിൽ മുട്ടുവേദന ശമിക്കും